ഹലോ ആ ഓട്ടോ ഡ്രൈവർ അഭിലാഷ് അല്ലേ ആ ഇത് ഞാൻ അജേഷ് ഞാൻ കാസർഗോഡ് ഇപ്പം ഞാൻ കാസർഗോഡുണ്ട് അപ്പോൾ എനിക്കൊന്ന് ബേക്കൽ കോട്ട കാസർഗോഡ് പുതിയ ബസ്റ്റാൻ്റിലുണ്ട് എനിക്കൊന്ന് എനിക്കൊന്ന് ബേക്കൽ കോട്ട പോകണം എനിക്ക് വഴി അറിയില്ല അപ്പോൾ ഒന്ന് നിങ്ങൾ ഒന്ന് നിങ്ങൾ ഏടെയാ ഏടെയാ ഇല്ലെ സ്ഥലം എന്ന് അത് ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരാം ആ അതെ അല്ലേ ആ ആ അതെയോ എനിക്ക് പോണ്ട ബേക്കൽ കോട്ട ഇപ്പം ഞാൻ ബേക്കൽ കോട്ട ബേക്കൽ കോട്ട ആ നമ്മൾക്ക് പോകാം ആ ആ ആ ഓക്കേ ആ

ആ ഇന്നും നാളെയും ഞാനുണ്ട് ഇവിടെ കാസർഗോഡ് ഉണ്ട് ഓ ഫാമിലി ഉണ്ട് ഫാമിലി ഉണ്ട് രണ്ട് പേരുണ്ട് ആ ആ ഓക്കേ ആ ഓക്കേ ശരി ഓക്കേ ആ ആ ആ ആ അതെല്ലാം ഉണ്ടല്ലേ അപ്പോൾ അപ്പോൾ ഈ അപ്പൊ ഇന്ന് ബീ ഇന്ന് ഇന്ന് ബീച്ചിൽ പോയിട്ട് നാളെ കോട്ടക്ക് പോവാം താമസം ഇപ്പോൾ കാസർഗോഡുന്ന് റൂമ് അത് ബുക്ക് ആക്കിയിട്ടുണ്ട് സെഞ്ച്വറിയിൽ ആ അതെയോ അപ്പോൾ ഇത് ക്യാൻസൽ ആയി തോന്നുന്നു ഞാൻ ഇപ്പോൾ വിളിച്ച് സെറ്റാക്കിയാന്ന് അത് എവിടെ സ്ഥലം അത് എവിടെ അത് എവിടെ സ്ഥലം സിറ്റി സെൻ്ററിലോ ആ ശരി ശരി അപ്പോൾ നിങ്ങൾ ഒന്ന് പെട്ടെന്ന് വരുമോ ഒന്ന് ഇങ്ങോട്ട് ആ നാളെ സംസാരിക്കാം ആ ശരി ശരി ആ ഞാൻ പുറത്ത് നിക്കാ അപ്പം നിങ്ങൾ പെട്ടെന്ന് വരണം ഒന്ന് ഓക്കേ ശരി ശരി